എൻ്റെ പ്രദേശത്തെ പ്രശസ്തമായ സ്കൂൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടി ഹൈ സ്കൂൾ എന്ന് പറയും അവിടെ ആറാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയാണുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്വാരക ദ്വാരക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയാണുള്ളത് നല്ല അത്യ അത്യാവശ്യം അടിപൊളി സ്കൂളുകൾ എന്ന് വെച്ചാൽ പിന്നെ കല്ലുവടി സ്കൂൾ ഉണ്ട് കല്ലുവടി അടിപൊളി സ്കൂൾ ആണ് അതൊക്കെയാണ് ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മാനന്തവാടി ഹൈ സ്കൂളിനേക്കാളും കുറച്ചുകൂടെ ഇത് ദ്വാരക ഹയർ സെക്കണ്ടറി അതായത് സെക്കട്ടേറ്ററി ഹയർ സെക്കണ്ടറി സ്കൂൾ എന്ന് പറയും അത് അതായത് ഗവൺമെൻറ്റും അല്ലാതെ എയ്ഡഡ് സ്കൂൾ ആണ് എയ്ഡഡ് സ്കൂൾ ആണ് അപ്പം അടിപൊളിയാണ് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വർഷം തന്നെ എഴുപത് എൺപത് എ പ്ലസ് ഉണ്ടാവും ഫുൾ എ പ്ലസ്സുകാരുണ്ടാവും പ്ലസ് ടുവിൽ അതിൽ പത്തിലാണെങ്കിലും അറുപത് എഴുപത് പേരുണ്ടാവും അപ്പം അത്രയ്ക്ക് നല്ലവണ്ണം പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ആണ് നമ്മളെ അങ്ങനെ അധികം കളിക്കാനൊന്നും വിടില്ല അത്യാവശ്യം നല്ലവണ്ണം പഠിപ്പിക്കും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മാനന്തവാടി സ്കൂളും അതുപോലെതന്നെ മാനന്തവാടി സ്കൂളിലൊരു അമ്പത് അറുപത് പേരൊക്കെ ഫുൾ എ പ്ലസുകാരുണ്ടാവും അപ്പം വലിയ നഗരങ്ങളിലേക്ക് പോവേണ്ട ആവശ്യം ഒന്നുമില്ല സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള സ്കൂളുകൾ തന്നെ നല്ലതാണ്